എനിക്ക് ഇഷ്ടം പൗലോ കൊയ്ലോയുടെ ദി ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം ആണ് കാരണം ആ ഒരു കഥയിലൂടെ അല്ലെങ്കിൽ ആ ഒരു പുസ്തകത്തിലുടെ അതിൽ പ്രതിനിധീകരിക്കുന്ന ഒരു കഥാപാത്രം ആയ ഒരു കുട്ടി ആ കുട്ടി തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളോ ആ പ്രശ്നങ്ങളിൽ നിന്ന് അവന് രക്ഷിക്കാനുള്ള പ്രതീഷകളും ആ പ്രതീഷകൾ അവന് ലഭിക്കുന്ന വഴികളും അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ എല്ലാം കൊണ്ടും എന്നെ വളരെ അധികം സാന്ത്വനിച്ച അല്ലെങ്കിൽ അല്ലെങ്കിൽ സാന്ത്വനിപ്പിച്ച ഒരു കഥയാണ് പൗലോ കൊയ്ലോയുടെ ദി ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം അതിലുപരി ആ ഒരു കലാകാരനെ എനിക്ക് വളരെ അധികം ഇഷ്ടമാണ് അതുകൊണ്ട് പൗലോ കൊയ്ലോയുടെ ദി ആൽക്കെമിസ്റ്റ് എന്ന ഒരു പുസ്തകമാണ് എനിക്ക് വളരെ അധികം ഇഷ്ടം